എല്ലാ ആളുകളേയും കായികമേഖലയില് തുല്യമായി ഉള്പ്പെടുത്തുന്നുണ്ടിപ്പം കാരണമെന്നുവെച്ചാൽ കട്ടിയായ വ്യായാമം പരിശീലനവും ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്ത്രീകളില് ചിലപ്പം കുറച്ച് പുറകിൽ നിൽക്കുന്നത് പക്ഷേ കായികക്ഷമത ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാർക്ക് തന്നെയാണ് പിന്നെ കട്ടിയായ പരിശീലനം പിന്നെ മറ്റുള്ള ഒരു സ്ത്രീകൾക്കുണ്ടാകുന്ന കുറേ അ ശരീര ശാരീരിക ഇത് കാരണമാണ് ഇവരിൽനിന്ന് കുറച്ചുകൂടെ പിന്തള്ളി നിൽക്കുന്നത് പിന്നെ ആറന്മുളയില് എന്നു പറഞ്ഞാൽ അതൊരു ആചാരമാണ് കാരണം വച്ചാൽ സ്ത്രീകളെ വള്ളത്തെ കയറ്റാന് പാടില്ല എന്നുള്ളൊരിത് ഒരു ആചാരം മാത്രമാണ് അത് അതില് പുരുഷന്മാര്ക്ക് മാത്രമേ പങ്കെടുക്കാന് പറ്റത്തുളളൂ അവിടെ വേറെ രീതിയിലല്ല ആചാരത്തിന്റെ ഒരിത് കാരണം മാത്രമാണ് സ്ത്രീകളതില് നിന്ന് പിന്തളി പിന്മാറി നിൽക്കുന്നത് പിന്നെ അതിൽ കുട്ടനാട്ടില് തന്നെ വള്ളംകളിയില് തന്നെ സ്ത്രീകളെ സ്ത്രീകളെ ഉള്പ്പെടുപ്പിച്ചും സ്ത്രീകൾ അതിനകത്ത് വള്ളം വള്ളം തുഴയുന്നുമുണ്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഇപ്പം ഇപ്പം ഇപ്പം ഇപ്പം ജെനറേഷന് വച്ച് ഇപ്പോഴൊരു കുറച്ചു വര്ഷങ്ങളേറെ ആയിട്ട് സ്രീകൾ തന്നെ സ്ത്രീകളെല്ലാ മേഖലയിലും തന്നെ അവര് അവരുടെ കാല്പ്പാട് കാല്പ്പാടുകളവരുടെ ചെയ്തിട്ടുണ്ട് കാരണമെന്നു വച്ചാൽ അവരുടെ അവരുടെ കഴിവുകള് തെളിയിക്കാന് വേണ്ടി അവരിപ്പം ഇപ്പം തന്നെ സ്ത്രീകളൊത്തിരി കഷ്ടപ്പെട്ടുതന്നെ മുന് പുരുഷന്മാരുടെ കൂടെത്തന്നെ അവർ പിടിച്ചുനിൽക്കാന് തന്നെ ശ്രമിക്കുന്നുമുണ്ട് കാരണമെന്നു വച്ചാൽ ഞാന് കണ്ടതില്വെച്ചിപ്പം ലിംഗസമത്വമെന്നു പറയുന്നത് ഇപ്പം അതൊരു പോയിന്റല്ല കാരണമെന്നുവെച്ചാൽ ഇപ്പം രണ്ടും ആണായാലും പെണ്ണായാലും എല്ലാം ഒരു പോലെത്തന്നെയാണ് എല്ലായിടത്തും കാണുന്നത് പിന്നെ വേറെ രീതിലെന്നുവെച്ചാൽ കായികമേഖലയിൽ ആയാലും ഏതു മേഖലയിലായാലും സ്ത്രീയും പുരുഷനും എല്ലാം ഒരുപോലെതന്നെയാണ് ഇപ്പം കായികമേഖലയില് ഞാനിപ്പം കണ്ടതു മുതൽ കണ്ടതെന്നുവെച്ചാൽ ഇപ്പം സ്ത്രീകൾ എല്ലാ മേഖലയിലും കായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ തന്നെ ഇപ്പോൾ സ്ത്രീകൾ ഉള്ളൊരു അവരവരുടെ ചുവടുകള് വെച്ച് തുടങ്ങിയിട്ടുമുണ്ട് അതിനകത്തവർ വിന്നർ ആയിട്ടുമുണ്ട്